അതായത് ഇപ്പോൾ ഇന്ത്യന്റെ പുറമേ പോവ പ പറയുവാണെങ്കിൽ നമുക്ക് മലയാള ഭാഷ അതായത് അധികം ആരും ഉപയോഗിക്കില്ല അതായത് മലയാളികൾ ഉണ്ടാവും പക്ഷേ അങ്ങനെ ആണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാംപിൾ പറയുവാണെങ്കിൽ ഇപ്പം അതായത് നമ്മളിപ്പോൾ വേറൊരു രാജ്യത്ത് പോയിട്ട് ഇപ്പോൾ പണിയെടുക്കാനൊക്കെ പോവുവാണെങ്കിൽ അത് ജർമനി ആണെങ്കിലും കാനഡയാണെങ്കിലും അങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ പണിയെടുക്കാൻ പോവണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് അവരുടെ ലാംഗ്വേജ് പഠിച്ചിട്ട് പോവണം അതായത് നമ്മുടെ ലാംഗ്വേജിൽ ഉള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും അത് നമുക്ക് ഇപ്പോൾ ഇൻ ഇന്ത്യയിലെ തന്നെ മലയാളത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ് പിന്നെ അതായത് നമുക്ക് ഈ കേരളത്തിൽ മാത്രമേ കൂടുതൽ മലയാളികൾ കൂടുതൽ ഉള്ളൂ പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും പക്ഷേ അവിടെ കൂടുതലും മലയാളത്തിനേക്കാളും സംസാരിക്കുക അതവരുടെ എല്ലാവരും അങ്ങനെയാണല്ലോ പൊതുവേ അവരുടെ ഭാഷയാണല്ലോ സംസാരിക്കുക പിന്നെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളീയർ തന്നെ അതിൽ കൂടുതലും ഇംഗ്ലീഷും അങ്ങനെ ഇതൊക്കെ ചേർത്തിട്ട് ഉള്ള സംസാരം ആണ് സംസാരിക്കുന്നത് മലയാളത്തിനൊരു വില ഇല്ലാത്തത് പോലെ അതായത് മലയാളത്തിൻ്റെ കൂടെ അവർ ഇംഗ്ലീഷ് ചേർത്തിട്ട് ചിലരൊക്കെ കൂടുതലും ഇംഗ്ലീഷ് തന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം ആണെന്നുള്ള ഒരു രീതിയിൽ എടുത്തിട്ടാണ് കുറേ പേർ അത് സംസാരിക്കുന്നത്